പലതരം രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ് പലരും നമ്മളിലുള്ളത് അതിൽ നിന്നുള്ള വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ശരീരഭാഗങ്ങളിലുള്ള അവയവങ്ങളിലുള്ള വേദനകൾ അതിൽ പള്ളവേദന പല്ലുവേദന തലവേദന തുടങ്ങിയ അതിൻ്റെ പല വേദനകളും അവയെല്ലാം അതികഠോരവും അസഹനീയവുമാണ് അതിൽപ്പെട്ട ഒന്നുതന്നെയാണ് തൊണ്ടവേദന തൊണ്ടവേദന പലപ്പോഴും പനി ജലദോഷം തുടങ്ങിയ അല്ലെങ്കിൽ കാലാവസ്ഥ മോശപ്പെട്ടത് കൊണ്ടെല്ലാം തൊണ്ടവേദന വന്നുചേരുന്നതാണ് തൊണ്ടവേദന വരുമ്പോൾ അത് സുഖപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങളായി പണ്ട് നാട്ടുവൈദ്യങ്ങളായിട്ടും അല്ലെങ്കിൽ മറ്റു മരുന്നുകളായിട്ടും പ്രചാരത്തിൽ പല മരുന്നുകളുമുണ്ടായിരുന്നു എന്നാൽ ഇക്കാലത്താണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം പുതിയ സംവിധാനങ്ങൾ വന്നുകഴിഞ്ഞു പുതിയ രീതിയിലുള്ള ഇംഗ്ലീഷ് മരുന്നുകളും മറ്റും അതിന് സുലഭമായി ഇന്ന് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ നാട്ടുവൈദ്യങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള പലതും അതിൻ്റെ ആവശ്യകതകൾ അല്ലെങ്കിൽ അതിൻ്റെ ആശ്രയങ്ങൾ ഇന്ന് വളരെ കുറവായിട്ടാണ് നാടുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പണ്ടുണ്ടായിരുന്ന ചില നാട്ടുവൈദ്യങ്ങളെ നമുക്കിവിടെ പരിചയപ്പെടാം തെങ്ങിൻ വെള്ളവും ഉപ്പും കൂട്ടി അതുകൊണ്ടുള്ള ഒരു നാട്ടുവൈദ്യം പണ്ട് വളരെ പ്രശസ്തമായിട്ടുണ്ടായിരുന്നു അതിൽ ഗരം ചൂടാക്കുകയും അതിൽ കുറച്ച് ഉപ്പ് ചേർക്കുകയും ചെയ്യുക അതിനുശേഷം ചൂട് സഹിക്കുന്ന രീതിയിൽ അത് കഴുകുക രണ്ട് മൂന്ന് ദിവസം ചെയ്തതുകൊണ്ട് തൊണ്ടയിലെ അണുബാധ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വലിയ മരുന്നായിട്ടാണ് പണ്ട് ഇതെല്ലാം കണ്ടിരുന്നത് അതുപോലെ തന്നെ തുളസിയും തിപ്പല്ലിയും ചേർത്തുകൊണ്ട് ഒരു കഷായം തയ്യാറാക്കുകയും അത് സേവിക്കുകയും ചെയ്യുന്നതിൽ നിന്നും നമ്മൾ തൊണ്ടവേദനയ്ക്കുള്ള മരുന്ന് കണ്ടെത്തിയിരുന്നു അതുപോലെ തന്നെ ഇഞ്ചിയും തേനും ചേർത്ത് ഒരു ടീസ്പൂണിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അത് കുടിക്കുന്നതും തൊണ്ടവേദനയ്ക്കുള്ള ഒരു മരുന്നായി പറയാറുണ്ടായിരുന്നു തൊണ്ടവേദനയുടെ ഒരു വലിയ മരുന്നായിട്ട് തന്നെ പലരും ഇഞ്ചി കാണാറുണ്ട് ഇഞ്ചി അങ്ങനെ ഇഞ്ചി പച്ചയ്ക്ക് കഴിക്കലും അതുപോലെ ഇഞ്ചി തേന് പോലെയുള്ള അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കലും ഇങ്ങനെയുള്ള പല രീതികളും ഇഞ്ചി കൊണ്ട് പലരും പരീക്ഷിക്കുന്നതാണ് അതുപോലെ തന്നെ കടാളത്തൊലി അത് പൊടിച്ചിട്ട് അതിൽ കുറച്ച് തേൻ ചേർത്ത് കഴിക്കുക അതുപോലെ തന്നെ ചുക്ക് കാപ്പിയുണ്ടാക്കുക ചുക്ക് കാപ്പിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചുക്കു കരുമഞ്ഞ് കുരുമുളക് ജീരകം തുടങ്ങി ഒരുപാട് സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ ചേർത്ത ഒരു ചേരുവയാണ് ചുക്ക് കാപ്പി ഇത് സേവിക്കുന്നത് കൊണ്ടും തൊണ്ടവേദന വളരെയധികം സുഖപ്പെടുന്നതായി കാണാൻ സാധിക്കും